ഹലോ ആരായിരുന്നു ഗീതികയാ ആ ഞങ്ങളിപ്പോൾ വഴിക്കാണ് ഉള്ളത് വണ്ടി ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ഡൌൺ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എവിടെയാണ് ഉള്ളത് ഇപ്പം മാനന്തവാടി എത്താനായി ഞങ്ങളിപ്പം പ പകുതി വഴിക്കാണ് ഉള്ളത് അപ്പം കുറച്ച് കഴിയുമ്പോത്തേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും പിന്നെ എന്തായി വെച്ചാൽ നിങ്ങൾ വേറെ ഏതേലും വണ്ടി കിട്ടുവാണെങ്കിൽ കയറിക്കോട്ടോ ബുക്ക് ചെയ്തതാണോ ഓക്കെ ഓക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും വണ്ടീൻ്റ ടയർ ഒന്ന് പഞ്ചർ ആയതാണ് ഇപ്പം അവർ ഡിപ്ലോ ബസ്സിൻ്റ ടൈമ് കറക്റ്റ് ആയിരുന്നു പക്ഷേ നമ്മൾ ഇതിൽ നട്ടിനും ബോൾട്ടിലും ഓടുന്ന ഒരു വണ്ടിയല്ലെ അപ്പം ടയർ പെട്ടന്ന് പഞ്ചറായി നമ്മൾ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും അപ്പോൾ അതൊന്ന് റീഫണ്ട്ന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മടേൽ ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പേയ്മെൻറ്റ് ചെയ്തതാണല്ലോ അപ്പം നേരെ സർക്കാരിലേക്കാണ് പോയേക്കുന്നത് അപ്പം റീഫണ്ട്ന്ന് പറഞ്ഞ ഓപ്ഷൻ ഞങ്ങളതിൽ ഇല്ല അപ്പം നിങ്ങൾ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാ മറ്റേ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഈ വണ്ടീ കയറാം അല്ലെങ്കിൽ ആ പൈസ കിട്ടൂല്ലാന്നാണ് പറയാൻ പറ്റുള്ളൂ അതെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മടേൽ ഇല്ലാത്തോണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് കാരണം വണ്ടി ഇവിടെ ബ്രേക്ക് ഡൌൺ ആയത് ഒരു വിഷയമാ നമ്മൾ നട്ടിലും ബോൾട്ടിലും ഓടുന്ന ഒരു സാധനം അല്ലെ നമുക്കത് എപ്പം എത്ര സമയം കൊണ്ട് എത്തുംന്ന് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് കൊണ്ട് കാരണം കൊണ്ട് ചിലപ്പം ഡിലേ ആവാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് ആ ഡിലേ ആവാൻ സാധ്യത ഉണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എന്തായാലും എത്തും മാനന്തവാടിക്ക് ഇപ്പം ഞങ്ങൾ ഇവിടെ ബത്തേരി ബത്തേരീന്ന് വന്നോണ്ടിരിക്കുന്ന വഴിക്കാണ് പഞ്ചർ ആയത് ഒരു നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നണ്ട് വേഗം തന്നെ നമ്മൾ അപ്പോൾ എത്താനുള്ള ചാൻസ് ഉണ്ട് കഴിയാറായി ഞങ്ങൾ കറക്റ്റ് ടൈം ഒരു എട്ടര ഒക്കെ ആകുമ്പത്തെക്കും എത്തും എട്ടര ആകുമ്പത്തെക്കും എത്തും കോഴിക്കോട് ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പത്തെക്കും എത്തും എട്ടരയ്ക്ക് കയറിയാൽ

ബ്രേക്ക് ഡൌൺ ആയത് ബത്തേരിക്കിന്ന് വരുന്ന വഴിക്കാണ് ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നാൽ